എൻ്റെ പൂന്തോട്ടം നിലനിർത്താൻ ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുങ്കിൽ മെയിൻ ആയിട്ട് കൊതുക് ശല്യം നമ്മള് ഇങ്ങനെ ചെടികളൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം ഇത്തിരി കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോത്തേക്കും കൊതുക് വന്ന് മുട്ട ഇടും മുട്ട ഇടുന്നതെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ പിന്നെ അത് വളരാൻ തുടങ്ങിയാൽ നമുക്ക് തന്നെയാണ് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അത് മെയിൻ ആണ് പിന്നേന്ന് വെച്ചാൽ കീടങ്ങള് അതായത് പുഴു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ഇല കടിച്ച് തിന്നുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് ഒക്കെ കടിക്കുക പൂക്കള് ഒക്കെ കടിച്ച് തിന്നുക അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ചെടി എല്ലാം നാശം ആയി തുടങ്ങും പിന്നെ ക്ഷുദ്ര ജന്തുക്കള് കുറെ ഉണ്ടാകും അതായത് പുഴുക്കളൊന്നുമല്ലാതെ വേറെ കുറെ ജന്തുക്കള് ഉണ്ടാകും അതൊക്കെ ചെടികളെ അതായത് അടിയോടെ തന്നെ നശിപ്പിക്കുന്ന കുറെ ജന്തുക്കള് ഉണ്ട് ഇങ്ങനെ ഒക്കെ ചെയ്യും അങ്ങനെ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഒക്കെ ആണ് പ്രശ്നം കൊതുക് കീടങ്ങള് ക്ഷുദ്ര ജീവികള് അങ്ങനെ ഉള്ളത് ഒക്കെ ആണ് മെയിൻ ആയിട്ട് കൊതുക് ആണ് കൊതുക് കുടുതലും പെരുകിയിട്ട് ഉണ്ടെങ്കില് നമുക്ക് അത് പല അസുഖങ്ങളും വരുത്തും അപ്പം കുടുതലും നമ്മള് അത് ശ്രദ്ധിക്കുക അതായത് വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ കീടങ്ങള് ക്ഷുദ്ര ജീവികളൊക്കെ കിടന്ന് നമുക്ക് അതായത് രാസവളം ഉപയോഗിക്കാതെ തന്നെ ജൈവവളം എന്തെങ്കിലുമൊക്കെ ഫോണിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മരുന്ന് അടിച്ച് കൊടുത്താൽ അതും ഇല്ലാതാക്കാം